ജീവിതത്തിൽ കായിക വിനോദങ്ങളിൽ പങ്കെടുക്കുന്നത്കൊണ്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മാനസിക മിനു പിരിമുറുക്കങ്ങളൊക്കെ കുറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ സ്കൂൾ തലങ്ങളിലൊക്കെ കായിക കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിന് നല്ല പ്രോത്സാഹനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയേറെ നല്ലൊരു പ്രോത്സാഹനത്തിലൂടെയാണ് കായിക ഇനങ്ങളിലൊക്കെ ഇന്നത്തെ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നത്